ഹലോ എടാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു ആ പറയാം ഇതിപ്പോൾ ഞാൻ കുറച്ച് ബിസിനസ്സ് നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടാണ് അതായത് ഞാനിപ്പോൾ കാറ്ററിങ് വർക്കാണ് അതിന് കുറച്ച് വരുമാനം കിട്ടുന്നുണ്ട് അതിനെത്ര ജി എസ് ടി അടക്കേണ്ടി വരും വരുമാനം വരുമാനം ഒരു ലക്ഷത്തിനടുത്ത് ഓഹ് ആണല്ലേ ഇപ്പോൾ ഞാൻ വേറെയൊന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയടയ്ക്കണം വേറെയിപ്പോൾ സെയിൽസ്മാനാണ് ഓഹ് ഓക്കെ ഓക്കെ അത്രയൊക്കെയാണല്ലേ എത്ര അഞ്ച് പെർസെൻ്റേജോ ഓക്കെ പിന്നേയും ജോലി ചെയ്യുന്നുണ്ടെങ്കിലോ ആ ഓക്കെ ഓക്കെ അപ്പോഴൊരു ഒരു ലക്ഷത്തിനു മുകളിൽ വരുമാനം ഉണ്ടെങ്കിലോ പത്ത് പെർസെൻ്റേജല്ലേ പത്തിനു മുകളിലല്ലേ ഓഹ് അപ്പോൾ അതിൽ കൂടുതലായാലോ ഓഹ് അപ്പോൾ കുറേയധികം ബിസിനസ്സ് ഉണ്ടെങ്കിലോ ആ അതിനും കൂടുമല്ലേ ആ ഓക്കെ ഓക്കെ ആ താങ്ക്സ് താങ്ക്സ്